മലയാളികള് അവരുടെ പാരമ്പര്യങ്ങള് അത് ഒത്തിരി ആഗ്രഹത്തോടു കൂടി തന്നെയാണ് അതിനെ കാണുന്നത് അതിപ്പം നമ്മള് ഓരോ ദേശത്തും ആഘോഷിക്കുന്ന അവരുടെ പാരമ്പര്യപരമായിട്ടുള്ള പല ആഘോഷങ്ങളുണ്ട് അവരുടെ തലമുറകളായിട്ട് കല കൈമാറി വന്ന ആഘോഷങ്ങളുണ്ട് അത് കൂടാണ്ട് ഓണം വിഷു അങ്ങനെ തുടങ്ങി പ്രാദേശിക പരമായിട്ടൊക്കെ ആഘോഷിക്കുന്നതിനപ്പുറം നമ്മള് മലയാളികള് മൊത്തത്തില് ആഘോഷിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് ഇതിനെല്ലാം നമ്മള് ഓണമൊക്കെ ആണെങ്കിലും അത് മലയാളിത്തത്തിൻ്റെ അല്ലെങ്കില് മലയാള നാടിൻ്റെ പാരമ്പര്യത്തെ തന്നെയാണ് വിളിച്ചു പോവുന്നത് ഒരു സംസ്കാരം അവിടെ നിലനിന്നിരുന്ന രീതികളൊക്കെയാണ് ഓണത്തിൻ്റെ ആഘോഷമായിട്ട് വരുന്നത് അതിനകത്ത് ഭാഷ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഓണപ്പാട്ടുകളാണെങ്കിലും വഞ്ചി പാട്ടുകളാണെങ്കിലും പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്ന താളവും അതിൻ്റെ ആ ഭാഷയും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇന്നും പലപ്പോഴും മലയാളികൾ ആ വഞ്ചി പാട്ടുകളും ഓണപ്പാട്ടുകളുമൊക്ക പാടുന്നെ അതുപോലെ തന്നെ ഉള്ളതാണ് തെയ്യം അത് നമ്മുടെ ഒരു പാരമ്പര്യം അതിൻ്റെ തനതായ രീതിയില് പരിപാലിച്ച് കൊണ്ട് തന്നെയാണ് തെയ്യം ഇപ്പഴും അങ്ങോട്ട് പോകുന്നത് അതിൻ്റെ താളം ആണെങ്കിലും അതിന് ഉപയോഗിക്കുന്ന ഭാഷയാണെങ്കിലും അതാത് പ്രദേശത്തെ മലയാളത്തിൻ്റെ തന്നെ പല പല പ്രദേശങ്ങളിലും ഉള്ള വ്യത്യാസങ്ങള് അതുപോലെ തന്നെ ഉൾക്കൊണ്ട് കൊണ്ട് തന്നെയാണ് ഈ ഓരോ ഭാഷ ഓരോ പാരമ്പര്യങ്ങള് അതിൻ്റെ ആഘോഷങ്ങള് സാംസ്കാരികപരമാണെങ്കിലും അവരുടെ പ്രാദേശികപരമായിട്ടുള്ള ആഘോഷങ്ങളാണെങ്കിലും എല്ലാത്തിലും ഉപയോഗിക്കുന്നത് ഇങ്ങനെ അവരുടെ ആ ലോക്കലായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെതായിട്ടുള്ള ആ ഒരു ഭാഷ മലയാള ഭാഷേല് തന്നെ പല രീതികൾ ഉപയോഗിച്ച് തന്നെയാണ്